എൻ്റെ വീട്ടിൽ എല്ലാ തരത്തിലുള്ള ചെടികളുമുണ്ട് നമ്മളുടെ ഈ കുഞ്ഞു കുഞ്ഞു ചെടികൾ കുഞ്ഞു കുഞ്ഞു പൂ വരുന്ന ചെടികൾ തൊട്ടിട്ട് വലിയ വലിയ ചെടികളുണ്ട് അപ്പോൾ നമ്മളാരും പൂക്കളിൻ്റെ ചെടികളെക്കുറിച്ച് പറയുക എന്നുണ്ടെങ്കിൽ പത്തു മണിയുണ്ട് വാടാമല്ലിയുണ്ട് കോഴിച്ചുട്ടിയുണ്ട് ചെണ്ടുമല്ലി ചെമ്പരത്തി ജമന്തി പിന്നെ നമ്പ്യാർവട്ടം അങ്ങനെ നിറയെ ചെടികളുണ്ട് നല്ല നല്ല കളറുകളുണ്ട് വള്ളിച്ചെടികൾ പറയുമ്പോൾ നമ്മളെ ഈ നമ്മൾ ഗ്രീനറിക്ക് വേണ്ടിയിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ പടർത്തി വിടുന്ന ചെടികളുണ്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടികളൊക്കെ നമ്മൾ നല്ല തണുപ്പും കിട്ടും അതിങ്ങനെ വളർന്ന് വളർന്ന് ഇങ്ങനെ എന്താ പറയുക വള്ളികളായിട്ട് ഇങ്ങനെ പോവുകയും ചെയ്യും അങ്ങനത്തെ ചെടികളുണ്ട് പിന്നെ നമ്മൾ എന്താണ് മണി പ്ലാന്റ് വച്ചു പിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മണി പ്ലാന്റുണ്ട് പിന്നെ എന്താണ് നമ്മൾ ഈ കസ്കസോസെന്നു പറയുന്ന ഒരു ചെടി നമ്മൾ അവിടെ കൊണ്ടു വച്ചിട്ടുണ്ട് ആ ചെടിയെന്നു പറയുമ്പോൾ അല്ല ഇതാണിങ്ങനെ ഈ പടർന്ന് വരും താഴോട്ടിങ്ങനെ പടർന്ന് വരും അതിൽ കിളികളൊക്കെ കൂട് കൂട്ടാറുണ്ട് അപ്പോൾ പൂക്കളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇങ്ങനെ ചെടികളൊക്കെയാണ് പത്തു മണി ചെടിയൊക്കെ പറയുമ്പോൾ വിധത്തിലാണ് അതുപോലെത്തന്നെ തെച്ചി അങ്ങനെ അങ്ങനെ കുറേ ചെടികളുണ്ട് ചെമ്പരത്തി പല നിറത്തിലുണ്ട് വെള്ള മഞ്ഞ ചുവപ്പ് അങ്ങനെയുള്ള പല നിറത്തിൽ ചെമ്പരത്തികൾ വച്ചു പിടിപ്പിക്കാറുണ്ട് അതുകഴിഞ്ഞ് പിന്നെ നമ്മൾ ഇപ്പോൾ മരങ്ങളെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ നമ്മളുടെ മാവ് പ്ലാവ് പിന്നെ സപ്പോട്ട റംബൂട്ടാൻ മാതളനാരങ്ങ പേരക്കയുടേതുണ്ട് അങ്ങനെ കുറേ ചാമ്പക്ക അങ്ങനെ കുറേ ചെടികളും ഒക്കെ നമ്മളിവിടെ വച്ചു പിടിപ്പിച്ചിട്ടുണ്ട്